ഹലോ ഹലോ ഇത് മുബഷിറയാണോ പിന്നെ മാഡം ഒരു ഇൻഷൂറിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് മാഡം എന്തെങ്കിലും ഇൻഷൂറില് ചേർന്നിട്ടുണ്ടോ ഇല്ലാ എന്നാൽ ഇപ്പോൾ ഒരു ന്യൂ ഇൻ ഒരു പുതുതായിട്ട് ഒരു ഇൻഷൂറിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ലൈഫിൻ്റെ ലൈഫ് ഇൻഷൂറൻസ് അപ്പോൾ മാഡത്തിന് അതിനകത്തേക്ക് ചേരാൻ താല്പര്യമുണ്ടോ ടൈറ്റാണോ സാരമില്ല മാഡം പിന്നെ ഇത് നല്ല പോളിസിയാണ് അതായത് പിന്നെ മൂന്ന് മാസം കൂടുമ്പം അഞ്ഞൂറ്റെഴ്ബത്ത്രണ്ട് രൂപ വെച്ചിട്ട് അടച്ചാൽ മതി മൂന്ന് മാസം കൂടുമ്പോൾ അൻപതിനായിരം രൂപയുടെ സ്കീമാണ് അൻപതിനായിരം രൂപയുടെ സ്കീമാണ് അപ്പം മാഡത്തിന് മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ ഒരഞ്ഞൂട്ടെഴുപത്തിരണ്ട് രൂപ വെച്ച് അടക്കാൻ കഴിയില്ലേ ഏറ്റവും താഴ്ന്ന ഒരു ചെറിയ പോളിസിയാണത് അത് മാഡത്തിന് മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ അടക്കാൻ പറ്റൂലെ അഞ്ഞൂറ്റെഴുപത്തിരണ്ട് രൂപ വെച്ച് അടച്ചാൽ മതി മാഡം അത് മാഡത്തിന് എപ്പളായാലും അത് ഉപകാരപ്പെടും അതായത് നാല് വർഷം കൂടുമ്പം നമ്മുടെ ഈ പോളിസി നാലായിരം രൂപ വെച്ചിട്ട് ബോണസ് കൊടുക്കുന്നുണ്ട് ആ നാല് വർഷത്തിൽ ഒരിക്കൽ നാല് വർഷത്തിൽ ഒരിക്കൽ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ നാലായിരം രൂപ ബോണസ് വരും അത് മാഡത്തിന് കയ്യില് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കില് മാഡത്തിന് അത് നമ്മടെ പോളിസി തന്നേ ഇടുവാണെങ്കില് കാലാവധി കഴിയുമ്പം മാഡത്തിന് ആ പിന്നെ ബോണസും പിന്നേ നമ്മുടെ പോളിസിയുടെ കമ്മീഷനും എല്ലാംകൂടെ കൂട്ടി നല്ലൊരു എമൌണ്ട് മാഡത്തിന് എടുക്കുകയും ചെയ്യാം അതെയോ ആ മാഡത്തിൻ്റെ പിന്ന ഹസ്ബെന്റിന് ജോലി ഉണ്ടോ എന്നാൽ ഹസ്ബെന്റ് എപ്പോഴായിരിക്കും ലീവുണ്ടായിരിക്കുക നമ്മള് നേരിട്ട് വന്ന് സംസാരിക്കാൻ പോളിസിനെ പറ്റിയിട്ട് സൺഡെയാ ആ എന്നാൽ ഈവനിങ് വരട്ടെ ഞങ്ങള് ഓക്കെ മാഡം ഞങ്ങള് നേരിട്ട് വന്ന് സംസാരിച്ച് ഹസ്ബെന്റിനോടും കൂടി പറഞ്ഞിട്ട് പിന്നെയീ പോളിസിയിലേക്ക് നിങ്ങളൊരു പോളിസി എടുക്കുക എന്നിട്ട് പിന്നെ ഭാവിയിലേക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു പോളിസിയാണ് ഇപ്പം കുറെ പോളിസി ആ നാല് നാല് വർഷത്തിലല്ല മാഡം നാല് വർഷം കൂടുമ്പം മാഡത്തിന് നാലായിരം രൂപ വെച്ചിട്ട് ബോണസ് കിട്ടുന്നത് ഒരു ഭീമാ ഭീമാ ഇൻഷൂറൻസ്ന്നാണ് ഇതിന് പറയുന്നത് ഓക്കെ മാഡം ഓക്കെ മാഡം പിന്നെ ഓക്കെ